ഇപ്പോൾ സവാരിയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മള് കൂടുതലായിട്ടും ഒരു കുതിരയെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഇപ്പം മൈനായിട്ട് നമ്മള് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുതിരയുടെ കാലുകളും കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും പരിക്കുകളൊക്കെ ഉണ്ടോ എന്ന് നമ്മള് ആദ്യം ശ്രദ്ധിക്കണം പിന്നെ കുതിരയുടെ ആരോഗ്യസ്ഥിതി കാര്യങ്ങള് നമ്മള് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ എന്താ പറയുക വളർച്ച പൂർണ്ണ വളർച്ച എത്തിയ ഒരു കുതിരയാണ് ആണെങ്കിൽ മാത്രമേ നമുക്കതിനെ എന്താ പറയുക ഓടിക്കാനും സവാരിക്കൊക്കെ കൊണ്ടുപോകാൻ പാകത്തിനാകൊളളൂ അല്ലാണ്ട് വെറുതെ ഒരു കുതിരയുടെ മേത്ത് കയറി ഇരുന്ന് നമുക്കങ്ങനെ കൊണ്ടുപോകാനൊന്നും പറ്റില്ല അതിൻ്റെ ആരോഗ്യ സ്ഥിതി കാര്യങ്ങള് പിന്നെ കാലിന് എന്തെങ്കിലും അസുഖങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളതാണോന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കത് എന്താ പറയുക കൊണ്ടുപോകാൻ സാധിക്കുളളൂ അപ്പോൾ അങ്ങനെ കുറെ പ്രശ്നങ്ങള് എന്താ പറയുക ഒരു സവാരിക്ക് കുതിരയെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മള് നോക്കേണ്ടെതായിട്ടുണ്ട് പിന്നെന്താ പറയുക ഇതിൻ്റെ ഗാർഡ് സേഫ്റ്റി മെഷർമെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മള് എന്താ പറയുക കയ്യില് കരുതണം എന്നാണ് എൻ്റെ ഒരഭിപ്രായം അപ്പോൾ അത് നല്ലൊരു ഹോർസ് റൈഡേർസിനാണ് പെട്ടന്ന് മനസ്സിലാവുള്ളൂ നമുക്കത്ര ക്ലിയറായിട്ടൊന്നും അതിനെപ്പറ്റി അറിയത്തില്ല എന്നാലും ചെറിയ ചെറിയ പരിചയമേ ഉള്ളു